ഞാന് കൂടുതലായിട്ടും വായിക്കുന്നത് എന്റെ ഒഴിവ് സമയങ്ങളിലാണ് ഒഴിവ് സമയങ്ങളിൽ വായിക്കാന് കാരണമെനിക്ക് കൂടുതലായിട്ട് ഏകാഗ്രത ലഭിക്കാന് വേണ്ടീട്ടാണ് ഞാന് ഒഴിവ് സമയങ്ങൾ തെരഞ്ഞെടുക്കുന്നത് അപ്പോൾ അവധി ദിവസങ്ങളിലൊക്കെ ഞാന് കൂടുതലായിട്ട് വായിക്കാറുണ്ട് അതുപോലെ പഠിച്ചോണ്ടിരുന്ന കാലത്താണെങ്കിൽ എനിക്കൊരുപാട് അവധി ദിവസങ്ങൾ കിട്ടിയിരുന്നു ഓണമാകട്ടെ ക്രിസ്മസാകട്ടെ അല്ലെങ്കില് ഒരു വലിയ ഒരു ബ്രേക്കെക്കെളൊക്കെ കിട്ടുന്ന സമയത്ത് ഞാന് കൂടുതലായിട്ട് പുസ്തകങ്ങൾ വായിച്ചിരുന്നു അല്ലാത്ത സമയത്തും വായിച്ചിട്ടുണ്ട് ഇല്ലന്നല്ല പക്ഷേ കൂടുതല് വായിച്ചിട്ടുള്ളത് എന്റെ അവധിയുള്ള സമയങ്ങളിലാണ് കാരണം നമുക്ക് സ്വസ്ഥമായും ഏകാഗ്രമായും വായിക്കാനായിട്ട് കിട്ടുന്ന ഒരു അവസരം ആ ഒരു സമയത്ത് മാത്രമാണ് അപ്പം കൂടുതൽ ശ്രദ്ധ ചെലുത്തി വായിക്കേണ്ട പുസ്തകങ്ങളാണെങ്കില് ഞാന് പ്രത്യേകം അവധി സമയത്ത് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നൊണ്ട് ഏകാഗ്രത അല്ലാതെ വേറൊരു കാര്യത്തിന്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഏകാഗ്രത നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് ഞാന് പലപ്പോഴും അവധി സമയങ്ങളിലൊക്കെ വായിക്കാനായിട്ട് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നതിന് കാരണം